കോഴിക്കോട് ജില്ലയില് താമസിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ആണ് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമ്മളൊരു നല്ലൊരു മഴപെയ്താൽ തന്നെ അവിടെ നല്ല രീതീലിങ്ങനെ നമ്മള് വേർക്കാനൊക്കെ തുടങ്ങും അങ്ങനത്തൊരു ടൈപ്പ് കാലാവസ്ഥയാണ് നമ്മുക്കെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ പാലക്കാട്ന്നക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വേർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല പൊള്ളലായിരിക്കും കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ പാലക്കാട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ഒരു സംസ്ഥ അതാ ഒരു ജില്ലയാണ് അപ്പം ആ ജില്ലയില് എങ്ങനെയാന്ന് വച്ച് കഴിഞ്ഞാല് ഭയങ്കര ചൂട് കൂടുതലുള്ളൊരു ജില്ലയാണ് പാലക്കാടെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അവിടേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ദേഹമൊക്കെ പൊള്ളുന്ന രീതീയിലുള്ളൊരു ചൂടും കാര്യങ്ങളുമൊക്കെയാണ് ബാക്കിയുള്ള ജില്ലകൾലക്കെ എങ്ങനെയാന്ന് വച്ച് കഴിഞ്ഞാല് നല്ല രീതീല് നമ്മള് വേർത്ത് പോകുന്ന രീതിയിലുള്ളൊരു ചൂടും കാര്യങ്ങളൊക്കേണ് അതേപോലെ തന്നെയാണ് നമ്മുടെ കോഴിക്കോടുള്ളത് പിന്നെ ബാക്കീന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതായത് ഇപ്പോൾ വയനാട് ഇടുക്കി ഇങ്ങനെ സ്ഥല ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പൊതുവെ നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലാണ് അപ്പം അവിടെ വലിയ രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടേക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാലം നമുക്ക് ചിലപ്പം ഇപ്പം മുൻകൂട്ടി നമുക്കറിയാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പം അറിയാൻ പറ്റുവായിരിക്കും പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു മഴ പെയ്യണ്ട ടൈംമൊക്കെയായിരുന്നു കഴിഞ്ഞ മാസം മുതലക്കെ ഇണ്ടായിരുന്നത് പക്ഷെ ആ ടൈമിലൊന്നും നല്ല രീതീലുള്ള മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല രീതീലുള്ളൊരു ഇനി അങ്ങോട്ട് ചിലപ്പോൾ വരണ്ടൊരു കാലം കാലോക്കെ ആയിരിക്കാം കാരണം വെള്ളത്തിന് നല്ലൊരു നല്ല രീതീലുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളക്കെ നമക്ക് ചിലപ്പം ഇനിയുള്ള കാലങ്ങളില് അനുഭവിച്ചേക്കാം